ഇപ്പോൾ ഞാൻ പണിയെടുത്ത് കൊണ്ടിരിക്കുന്ന ഇഷ്ടം പോലെ കാര്യങ്ങൾ ഉണ്ട് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതലായിട്ടും ഞാൻ പെയിൻറിങ് കാര്യങ്ങളും ഒക്കെയാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് അപ്പം അത് നല്ല രീതിയിൽ ചെയ്തുകൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കാരണം നമ്മളൊരു വലിയൊരു വീടെടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ പണി ഒരു ടൈം പറഞ്ഞിട്ടുണ്ട് ഒരു അടുത്ത മാസം ഒരു പതിനഞ്ചാന്തി ആ ടൈമിനുള്ളിൽ തീർത്തു കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര അതിൽ അതിയായ ആഗ്രഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ കൂടുതലായിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്കും കാര്യങ്ങളുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ പണി കൂടാണ്ട് അടുത്ത വേറൊരു സൈഡിലേക്കുള്ള പണിയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും അപ്പം അത് തീർത്തു കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു പണി നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം അതൊരു വേ നല്ലൊരു ലക്ഷ്യം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആ ഒരോ പണി ചെയ്യുമ്പോഴും നമുക്ക് നല്ല രീതിയിലുള്ള മനസ്സ് നിറഞ്ഞ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം അത് നമ്മൾ ചെയ്ത ഒരു വർക്കാണല്ലോ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പോൾ പുറമേ പുറമേ നിന്നിട്ട് ഒരാൾ ആ ഒരു വീട് കണ്ടിട്ട് ഇതാരാ പെയിൻറ് വർക്ക് ചെയ്തേ അപ്പം ഇന്ന ആളാണ് എന്ന് പറഞ്ഞു കഴിയുമ്പം നമുക്ക് ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അവർ നമ്മളെ വിളിച്ചിട്ട് നല്ല പെയിറ്റിംങ് വർക്കാണ് കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ എനിക്ക് എന്താ പറയുക നമ്മളുടെ ഒരു സന്തോഷമൊക്കെ ഉണ്ടാക്കുന്ന ഘടകമാണ്